തീര്ച്ചായും കാരണം എൻ്റെ കുടുംബം ഇതിന് പൂര്ണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഞാന് ഇത് ചെറുപ്പം തൊട്ടേ എനിക്ക് വളരെ ഇഷ്ട്ടപ്പെട്ടൊരു ഹോബിയാണ് ഈ ഫോട്ടോഗ്രാഫി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാന് ചെറുപ്പം തൊട്ടേ മൊബൈലിലാണെങ്കിലും ക്യാമറ കിട്ടുമ്പോൾ ക്യാമറയിലാണെങ്കിലും കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കാറുണ്ട് ഇതെല്ലാം വീട്ടുകാരേയും കാണിക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ട്ടം തോന്നാറുണ്ട് അവര്ക്ക് വേണ്ടി എൻ്റെ കഴിവിനെ അംഗീകരിക്കാറും ഉണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ വീട്ടുകാര് ഈ ഫോട്ടോഗ്രാഫി ഫീല്ഡിനെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട് എന്നെയും ഒരുപാടവര് ഇതിന് വേണ്ടിട്ട് സമ്മര്ദ്ദം ചെലുത്താറുണ്ട് ഫോട്ടോ എടുക്കാന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കേണ്ട സന്ദര്ഭങ്ങളില് എന്നെയാണ് കൂടുതലവര് സമീപിക്കാറ് അതുകൊണ്ടുതന്നെ വീടുകാരിതിന് പൂര്ണ്ണമായിട്ടുള്ള പിന്തുണ എനിക്ക് നല്കുന്നുണ്ട്